ഇപ്പോൾ പാചകത്തിന് വേണ്ടിയിട്ടുതന്നെ ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ തന്നെ ഉണ്ട് ഇപ്പോൾ പറയാനാണെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ് അതിൽ പോയാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും കാര്യങ്ങളിലൊക്കെ ഫുഡുണ്ടാക്കാനൊക്കെ പഠിക്കാനും ഇതിനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഹോട്ടൽ മാനേജ്മെൻറ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കേതേലും പ്രോപർട്ടിയിലൊക്കെ കയറുവാണെങ്കിൽ അവിടുത്തെ മാസ്റ്റർ ഷെഫുകൾ നമുക്ക് വേണ്ട പാചക വിധികളൊക്കെ പറഞ്ഞുതരികയും അത് നമുക്ക് പഠിച്ച് നല്ല രീതിക്കുതന്നെ പാചകം ചെയ്യാനൊക്കെ സാധിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തപ്പോൾ ഇപ്പോൾ ഞാൻ ഓഷ്യനെന്ന് പറയുന്ന ഒരു വയനാട്ടിലുള്ള ഒരു ഫൈവ് സ്റ്റാർ പ്രോപർട്ടിയിൽ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ അവിടുത്തെ ഷെഫ് വിനോദെന്ന് പറയുന്ന ഒരു ഷെഫ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഷെഫ് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കുക്ക് ചെയ്യേണ്ട രീതികളും അതുമിതുമൊക്കെ പറഞ്ഞുതരുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ട്രെയിനിങ് പിരീഡിൽ തന്നെ അത്യാവശ്യം നല്ല ഹെൽപ്പ്ഫുൾ ആയിരുന്നു അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുന്ന് കുറെ എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നു അപ്പോൾ അത് നല്ല രീതിയ്ക്കുതന്നെ എനിക്ക് ഒരു പ്രചോദനമായിട്ടാണ് തോന്നിയത് കാരണം നമുക്ക് വെറൈറ്റി കുക്കിങ് രീതികളും അത്യാവശ്യം നല്ല രീതിയിൽ കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അവര് നല്ല രീതിക്ക് എന്നെ ഹെല്പ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല കുക്കിങ് ഒക്കെ പഠിക്കുകയൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെ എന്താ പറയുക ഹോട്ടൽ ഫീൽഡിൽ ഒക്കെ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ല സ്റ്റാർ പ്രോപ്പർട്ടികളൊക്കെ ആണെങ്കിൽ നല്ല ഷെഫുകള് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നല്ല പരിശീലനം നൽകും പിന്നെ എന്താ പറയുക ഹോട്ടൽ മാനേജ്മെൻറ് എന്ന് പറയുന്ന കോഴ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുക്കിങ്ങിനുള്ള എന്താ പറയുക ഒരു പ്രയോർട്ടി കിട്ടുന്നൊരു ഫീൽഡ് തന്നെ ആണത്